ബൈക്ക് പരിപാലനം എന്ന് പറഞ്ഞാൽ ബൈക്ക് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ കാര്യങ്ങൾ ഒക്കെ ശരിക്കും ആ സമയമാകുമ്പോൾ മാറ്റുക മറ്റേ ഓയിൽ കരിയുന്നതിൻ്റെ മുന്നേ ഒ ക്കെ ഓയിൽ മാറ്റി കൊടുക്കുക പിന്നെ എന്തെങ്കിലും സൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വർക്ക് ഷോപ്പിൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യിക്കുക എന്താണ് സൗണ്ട് വരുന്നത് ഒക്കെ നോക്കുക പിന്നെ ബൈക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മണിക്കൂറുകളോളം ബൈക്കിൻ മേൽ ഇരിക്കാതെ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് എന്തെങ്കിലും ചായയോ വെള്ളം ഒക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ വാഹനം ഓടിച്ച് പോകുവാണെങ്കിൽ നമുക്ക് അപകടം കുറയ്ക്കാൻ പറ്റും ഒരേയിരിപ്പ് മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് വരും മടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണ് ചിമ്മിപ്പോകും കണ്ണ് മാളിപ്പോകും നമുക്ക് ഉറക്കം വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് അപകടം ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ കൂടുതൽ ബൈക്ക് എന്നല്ല ഏത് വാഹനം ആയാലും കൂടുതൽ നേരം യാത്ര ചെയ്യുമ്പോൾ റെസ്റ്റ് എടുക്കൽ നിർബന്ധം റെസ്റ്റ് എടുത്ത് മുഖം ഒക്കെ കഴുകി എന്തെങ്കിലും ഭക്ഷണം ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് വാഹനം ഒക്കെ ഓടിച്ചു പോകുമ്പോൾ വലിയ കൂടുതൽ വേഗതയൊന്നും ഇല്ലാതെ കുറഞ്ഞ വേഗത്തിലൊക്കെ ആയിട്ട് ഓടിച്ചുപോവുകയാണെങ്കിൽ വാഹന അപകടങ്ങൾ നമുക്ക് കുറേ കുറയ്ക്കാൻ പറ്റും